ഇതുപോലുള്ള നേട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോളെനിക്ക് പറയാനുള്ളത് ഫസ്റ്റ് എനിക്ക് എൻ്റെ കൂട്ടുകാരൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത് ഡേ ആഘോഷിച്ച ഒരു സംഭവമാണ് എനിക്ക് പറയാനായിട്ടുള്ളത് അത് നമ്മൾ അവനൊരു സർപ്രൈസ് രീതിയിലാണ് നമ്മൾ കൊടുക്കാനുദ്ദേശിച്ചത് അത് മാക്സിമം അങ്ങനെ തന്നെ കിട്ടീട്ടുണ്ടെന്ന് വേണം പറയാൻ

അപ്പോഴൊന്നും ഇവന് അറിയൂല്ലായിരുന്നു ഇങ്ങനത്തെ ഇതിന് വേണ്ടി ആയിരുന്നുവെന്ന് എന്നിട്ട് നമ്മൾ പെട്ടന്ന് തന്നെ ഒരു സർപ്രൈസ് രീതിയിൽ കേക്ക് എല്ലാം കൊണ്ടുവന്നു ഫ്രണ്ട്സെല്ലാം അവൻ്റെ ഫോട്ടോസും റീൽസ് റീൽസിന് വേണ്ടി വീഡിയോസും എല്ലാം എടുത്തു അതവന് പിന്നെ അവന് അതെല്ലാം ഒരു മെമ്മറീസ് ഒരു സെറ്റപ്പാണ് കഴിഞ്ഞിട്ട് കുറേ നാളായെങ്കിലും അത് അവിടെ അങ്ങനൊരു ഇത് ചെയ്തത് കൊണ്ട് ഇപ്പോഴും അതൊരു മെമ്മറബിളാണ് അത് മറന്ന് പോയിട്ടില്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവന് പ്രത്യേകം അവന് ഭയങ്കര സന്തോഷമായിരുന്നു അത് അവന് അവന് ഇപ്പോൾ പറയുമ്പോഴും അങ്ങനെയൊരു അവന് ഇതുവരെ അങ്ങനൊരു ലൈഫിൽ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അപ്പം നമ്മളതിന് മുൻകയ്യെടുത്ത് ചെയ്തതിൽ വളരെ അധികം സന്തോഷമുണ്ട് അത് എല്ലാവരും എൻജോയ് ചെയ്തിരുന്നു നമ്മളെ ഫ്രണ്ട്സെല്ലാം നല്ല പോലെ എഞ്ചോയ് ചെയ്തു അങ്ങനത്തെയൊരു ഇൻസിഡൻറ്റായിരുന്നു അത്